ഞാൻ ഇപ്പോൾ മലപ്പുറത്ത് ഒരു കമ്പനീലാണ് വർക്ക് ചെയ്യുന്നത് അവിടൊരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സൂപ്പർ വൈസർ ആയിട്ട് ഒരു മൂന്ന് കൊല്ലായിട്ട് ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നല്ലൊരു ജോലിയാണ് അത്യാവശ്യം ശമ്പളോക്കേണ്ട് സ്ഥിരപ്പെടുത്തിയ ശമ്പളം ഉണ്ട് ഇരുപത്തയ്യായിരം ഉണ്ട് പിന്നെ പി എഫ് ഉണ്ട് ഇ എസ് എ ഉണ്ട് മാസത്തില് ആറ് ദിവസം ലീവുണ്ട് ആ അതൊന്നും കുഴപ്പമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ ഒൻപത് മണി മുതല് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഡ്യൂട്ടി ടൈം ഉള്ളത് സൺഡേ വർക്ക് ഉണ്ട് സൺഡേന്ന് പറഞ്ഞാൽ കമ്പനീലെ മെയിന്റൈൻസു വർക്കക്കെ നമ്മള് പറഞ്ഞ് ചെയ്യിപ്പിക്കുക അതിനുള്ള നമ്മള് സൂപ്പർവൈസിങ് ആണ് ജസ്റ്റൊന്നു പറഞ്ഞ് കൊടുത്ത് സൺഡേ ഉച്ചവരെ അല്ലങ്കിൽ ചെറിയ കുറച്ച് പണിയേ ഉണ്ടാകുവോള്ളു എപ്പഴും ഉണ്ടാകില്ല വല്ലപ്പോഴുവൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലു വർക്ക് ഉണ്ടാകും പെന്റിങ് ഇള്ളത് സാധാരണക്കെ ശനിയാഴ്ച വൈന്നേരം തന്നെ എല്ലാ വർക്കും മെയിന്റൻസ് എല്ലാം ചെയ്തു വയ്ക്കും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞായറാഴ്ചയായി കുറച്ച് വയ്ക്കും പിന്നേന്ന് പറഞ്ഞാല്

ജോലി എങ്ങനെയാച്ചാ അപ്പം നമുക്ക് നമ്മുടെ അണ്ടറിൽ ഒരു പത്ത് ഇരുപത് ലേബർമാര്ണ്ട് അപ്പം നമ്മള് ഈ അവരുമായി കൃത്യമായിട്ടിങ്ങനെ പണികളൊക്കെ ചെയ്യാൻ പറയുക ഓരോ മെഷീൻ്റെ അടുത്ത് ഓരോ ആൾക്കാരെ നിർത്തുക അതുപോലെ മൊത്തത്തില് കണ്ട്രോള് ചെയ്യുക കമ്പനി മിനിട്സില് നമ്മള് അതിൻ്റെ അണ്ടറിലാണ് വരുന്നത് നമ്മള് എല്ലാം കണ്ട്രോള് ചെയ്യുക ആൾക്കാരുടെ എഫിഷ്യൻസി അനുസരിച്ച് വിട്ടേക്കുക അതുപോലെ ഇവരുടെ ഷിഫ്റ്റിൻ്റെ ടൈം എഴുതി വക്കുക ഇവരുടെ പേയ്മെന്റൊക്കെ നമ്മളാണ് പറഞ്ഞ് കൊടുക്കുക ഇത്ര ഇപ്പം ഇത്ര വർക്ക് ഇത്ര ഡ്യൂട്ടി ഇവർക്കുണ്ട് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ലേബറ് തച്ചാണ് അപ്പോൾ ഇത്ര ഷിഫ്റ്റ് ഉണ്ട് പറഞ്ഞ് നമ്മള് എഴുതിക്കൊടുക്കണം അത് നമ്മള് അക്കൗണ്ട്സിൽ കൊടുക്കണം ഇത്ര പേര് ഇത്ര ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് നമ്മളിത്ര പേര് ഇത്ര ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അത് നമ്മള് കൊടുക്കും അങ്ങനെ നമ്മള് പേ പയ്മെന്റാവുക അങ്ങനെ മൊത്തത്തില് നമ്മളാണ് എല്ലാവരേയും കണ്ട്രോള് ചെയ്യുന്നത് അതുപോലെ അവരുടെ ലീവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളാണ് നോക്കാ ഇപ്പോ ആൾക്കാരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മള് അവരെ ലീവിന് പറഞ്ഞയക്കും അതില് ഷിഫ്റ്റിന് ഇപ്പം ഒരാളില്ലാ പറഞ്ഞ് ഒരാൾക്ക് ഡബിൾ ഷിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനേക്കെ നമ്മള് കൊടുത്ത് റെഡി ആക്കും ഇതൊക്കെയാണ് പണി